ഇന്ത്യയുടെ ചരിത്രമെന്ന് പറയുമ്പോള് ധാരാളം മഹാത്മാക്കള് ഉള്ളതായിരുന്നു മഹാത്മാക്കളുടെ സേവനവും ത്യാഗവും കൂടിയാണ് ഇന്ത്യക്ക് ചരിത്രപരമായി എന്ന് പറയാനായിട്ട് ഉള്ള ഇടയായത് നിങ്ങൾക്ക് ഈ അഭിമാനം തോന്നിയ ചരിത്ര നിമിഷം ആ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും റിപ്പബ്ലിക്കായതും സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഔഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ചതിലൂടെ ഒത്തിരി മഹാത്മാക്കളുടെ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു അവര് വളരെ ത്യാഗങ്ങള് സഹിച്ചാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക്കില് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക്ക് നേടിയതിനോടൊപ്പം തന്നെ അതിലും ഒത്തിരി മഹാത്മാക്കളുടെ ത്യാഗങ്ങള് ഉണ്ടായിരുന്നു അവര് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ജനതകളെ രക്ഷിച്ചവര് ചരിത്രത്തിലേക്ക് വന്നു ചരിത്ര നായകന്മാരായി അവര് പടുത്തുയർത്തിയ ആ ഒരു നേട്ടത്തിലൂടെയാണ് നമ്മള് ഇപ്പോഴും നമ്മൾ കടന്ന് കടന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് മഹത്മാഗാന്ധി ബാലഗംഗാധര തിലക് അതുപോലെ ജവഹർലാൽ നെഹ്റു പിന്നെ ഝാൻസി റാണി ഇവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ത്യാഗങ്ങളും ത്യാഗത്തോട് കൂടിയായിരുന്നു അവരുടെ ജീവിതങ്ങള് മുഴുവനും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അവര് ഒത്തിരി ഒത്തിരി കാര്യങ്ങള് ചെയ്തു അതിന്റെ ഫലമായി നമുക്ക് ഇന്ന് നമ്മളിന്ത്യക്കാരാണെന്ന് നമുക്കിന്നഭിമാനിക്കാനായിട്ട് സാധിക്കും